ഒറ്റ ദിവസം കൊണ്ട് നടത്തിയ ഏറ്റവും കൂടുതൽ യാത്ര എന്ന് പറഞ്ഞാൽ അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങാണ് അത് മൂന്ന് ദിവസത്തെയാണ് അതിലൊരു ദിവസം പതിനാല് കിലോമീറ്ററും രണ്ടാമത്തെ ദിവസം നമ്മള് ബേസ് ക്യാമ്പിലെത്തിച്ചേർന്ന് അവിടെ നിന്നൊരു ഏഴ് കിലോമീറ്റർ മുകളിലോട്ടും അവിടന്നൊര് ഏഴ് കിലോമീറ്റർ താഴോട്ടുമാണ് ഇനി മൂന്നാം ദിവസം നമുക്ക് ഈ ആദ്യത്തെ ദിവസം നമ്മള് യാത്ര ചെയ്ത പതിനാല് കിലോമീറ്റർ തിരിച്ച് ഇറങ്ങാം ഇതാണ് സാധാരണ രീതിയിലുള്ള ഈ അഗസ്ത്യാർകൂടം ട്രെക്കിങ് ആകെ മൊത്തം ഏകദേശം ഒരു അമ്പത്തിരണ്ട് കിലോമീറ്ററോളം നീളുന്നതാണ് അഗസ്ത്യാർകൂടം ട്രക്കിങ് ഞാൻ മൂന്ന് വട്ടം യാത്ര ചെയ്തപ്പോളും രണ്ട് ദിവസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് അതായത് രണ്ടാമത്തെ ദിവസം ഏക ഏകദേശം ഇരുപത്തിയെട്ടോളം കിലോമീറ്ററാണ് യാത്ര ചെയ്യുക നമ്മള് രണ്ടാമത്തെ ദിവസം ബേസ് ക്യാമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഗസ്ത്യാർകൂടം പർവതത്തിൻ്റെ ഏറ്റവും മുകളിൽ എത്തുന്നു ഉച്ചക്ക് നമുക്കൊരു രണ്ട് മണി മൂന്ന് മണിയാവുന്നേന് മുന്നേ നമുക്ക് നമ്മുടെ ബേസ് ക്യാമ്പിൽ തിരിച്ചിറങ്ങിയാൽ നമ്മുടെ ശാരീരിക അവസ്ഥ അനുവദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഫോമെഴുതിക്കൊടുത്ത് നമുക്ക് തിരിച്ച് ഇറങ്ങാവുന്നതാണ് ഒരേ അങ്ങനെ ആ രണ്ട് മണിക്ക് ഇറങ്ങിയാലാണ് നമ്മളൊരു ഏഴ് മണി ആകുമ്പോളെങ്കിലും നമുക്ക് താഴെ നമ്മള് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് അല്ലെങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റത്തുള്ളു അപ്പം ഈ അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങാണ് എനിക്ക് തോന്നുന്നു ഒറ്റ ദിവസം കൊണ്ട് ക നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ ഹൈക്കിങ് ഈ ഇരുപത്തെട്ട് കിലോമീറ്റർ യാത്ര എന്ന് പറയുന്നത് വളരെ ദുർഘടമാണ് ദുർഘടമെന്ന് പറയാൻ കാരണം നമ്മള് ബേസ്ക്യാമ്പിൽ നിന്ന് രാവിലെ ഭക്ഷണം എന്തെങ്കിലും ചെല്ലുന്നു ഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് നമ്മൾ പാർസല് വാങ്ങി ഭക്ഷണം ഇലകളിൽ വട്ട ഇലയിലൊക്കെ പൊതിഞ്ഞാണ് അവർ നമുക്ക് തരുന്നത് വട്ട ഇലയിൽ പൊതിഞ്ഞ് നമ്മളൊരു മൂന്നാലഞ്ച് കിലോമീറ്റർ കുത്തനെ കയറ്റമാണ് ഈറ്റ കാടുകളിലൂടെ ഉള്ള കയറ്റമാണ് ചിലപ്പോൾ നമുക്ക് ആനയെ കാണാൻ പറ്റും കുറച്ചൊക്കെ ചെല്ലുന്നു നമ്മളൊരു പാറ ഇടുക്ക് ചെല്ലുന്നു അവിടെ നമുക്ക് നമ്മുടെ കൂടെ വന്ന് ചിലവർ കുളിക്കാൻ ഇറങ്ങുന്നതാണ് വളരെ ശുദ്ധമായ വെള്ളം നമുക്ക് അവിടുന്ന് കുടിക്കാൻ പറ്റുന്നതാണ് കുപ്പികളിലെല്ലാം വെള്ളം നിറക്കുന്നു അൽപ്പം വിശ്രമിച്ച് നമ്മളവിടെന്ന് രാവിലത്തെ കാപ്പി ഉപ്പ്മാവൊക്കെയായിരുന്നു ഞങ്ങളന്ന് കഴിച്ചത് ഉപ്പുമാവും കടലക്കറിയും ഒക്കെ ആയിരുന്നു ആ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ് ഇനിയുള്ള യാത്ര വീണ്ടും വളരെ ദുർഘടമാണ് ഈ പാറയിടുക്കിൽ കൂടെ ഉള്ളതാണ് വെയില് നമ്മൾ ഈ പാറപ്പുറത്ത് കൂടി നടക്കുമ്പോൾ വെയിലും പൂർണമായും അടിക്കുന്നുണ്ട് അപ്പോൾ വെയിലിൻ്റെ കാഠിന്യം ഒരു സൈ ഒരു വശത്ത് കൂടി കൂടിക്കൊണ്ടിരിക്കുന്നു മറ്റേത് ഇനി അടുത്തത് വീണ്ടും ഓരോ കഴിയുമ്പോള് നമ്മള് എത്തിയില്ലേ എത്തിയില്ലേ എന്നുള്ള ചിന്ത നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു കാരണം നമ്മുടെ കാലുകൾ മടുത്തു കൊണ്ടിരിക്കുന്നു ഇനി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വളരെ പാറയിടുക്കാണ് കല്ലുകളുണ്ട് ശ്രദ്ധിച്ച് ചവിട്ടിയില്ലെങ്കിൽ വീഴുന്ന പാറപ്പുറത്തൂടെയാണ് നമ്മൾ നടത്തുന്നത് പിന്നെ പാറപ്പുറത്ത് വലിഞ്ഞ് കയറണം അതിന് ഒരു വടം കെട്ടി നിർമ്മിച്ചിട്ടുണ്ട് ഈ വടത്തിലൂടെ പിടിച്ചിട്ട് വേണം നമുക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് കയറാൻ ഈ വടത്തിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് വീണ്ടും കുറച്ച് മ പാറപ്പുറം കയറണം അങ്ങനെ മൂന്ന് തവണ ഈ വടം പിടിച്ച് കയറിയാൽ മാത്രമാണ് നമ്മള് അഗസ്ത്യാർകൂടം പർവ്വതത്തിൻ്റെ ഉയരത്തിൽ എത്തത്തുള്ളു ഇനി ഇത് ഇതുപോലെ തന്നെ തിരിച്ച് ഇറങ്ങുകയും വേണം അപ്പം നമ്മളൊരു സംഘമായിട്ടാണ് പോകുന്നത് ഈ സംഘത്തിൽ എല്ലാവരും തിരിച്ചെത്തിയാൽ മാത്രമാണ് നമ്മൾ താഴോട്ട് പോകത്തുള്ളു അപ്പം ഇത് എറ കയറുന്നതിനേക്കാൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇത് തിരിച്ച് ഇറങ്ങുക എന്നുള്ളത് കാരണം ഇറക്കം വരുമ്പോൾ കാലുകൾ നമ്മളുദ്ദേശിക്കുന്നിടത്ത് നിൽക്കാതെ വരുന്നു അവനവൻ്റെ ഇഷ്ടത്തിന് കാലുകള് സഞ്ചരിക്കാൻ തുടങ്ങുന്നു ഈ വടത്തിലൂടെയൊക്കെ പിടിച്ചിറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് വഴുക്കലുണ്ടാവും വെള്ളം വീണ് പാറകളിൽ തെറ്റലുണ്ടാവും കാലുകൾ കല്ലിൻ്റെ ഇടയിലുള്ള പോകാനുള്ള സാഹചര്യങ്ങള് വളരെ കൂടുതലാണ് അപ്പം ഈ ഒരു അഗസ് വീണ്ടും നമ്മള് തിരിച്ച് ബേസ്ക്യാമ്പിലെത്തി തിരിച്ച് നമുക്ക് താഴോട്ട് എത്തി ചേരുക അപ്പം ഈ ഇരുപത്തെട്ട് കിലോമീറ്റർ യാത്രാന്ന് പറയുമ്പോൾ നമ്മളെകദേശം എല്ലാ രീതിയിലും നടക്കും കുത്തുകയറ്റങ്ങളുണ്ടാവും പാറ ഇടുക്കുകളുണ്ടാവും വടത്തിൽ കൂടെ പിടിച്ച് കയറുന്നുണ്ടാക് ഈറ്റക്കാടുകളുണ്ടാവും കുന്നുകളുണ്ടാവും പുഴകള് നമ്മള് നടക്കേണ്ടതുണ്ട് കു കാടുകളിൽ കൂടെ നമ്മള് നടക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങാരുന്നു ഞാൻ അടുത്ത കാലത്ത് നടത്തിയതിൽ ഏറ്റവും ദൈർഘ്യമേറിയതും ഏറ്റവും ദുർഘടമേറിയതുമായ ഒരു ഹൈക്ക്